സ്ത്രീകളിലെ ആർത്തവം എന്നു പറയുന്നത് പ്രകൃതിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു അമ്മ ആകാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് അതിലൂടെയാണ് അപ്പോൾ നമ്മൾ അത് എത്രയും ചിട്ടയോടെ അത് പാലിച്ചു പോകണം ആ സമയങ്ങളിൽ നമ്മൾ ശുദ്ധി നല്ല ശുചിത്വത്തോടെ കൂടെ വൃത്തി ആയുള്ള തുണികൾ ഉപയോഗിക്കുകയും ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഇത് സാനിറ്ററി പാഡുകളൊക്കെ ഏറ്റൊ നല്ല ഗുണമേന്മ ഉള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കണം അതൊക്കെ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ആ സമയങ്ങളിൽ രണ്ടുമൂന്നു പ്രാവശ്യം കുളിക്കുകയും നമ്മൾ ശുചിത്വം പാലിക്കാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കണം